സംസ്കൃതം ഇന്ത്യയിലെ തന്നെ വളരെയധികം വളരെ പഴയതായ ഒരു ഭാഷയാണ് ഈ ഭാഷയിൽ നി ഓട് ഭ മലയാളഭാഷയ്ക്ക് വളരെയധികം സ്വാധീനമുണ്ട് മലയാളം ഒരു ദ്രാവിഡഭാഷയാണ് ഇത് സംസ്കൃതത്തിലാണ് പണ്ടത്തെ വേദഗ്രന്ഥങ്ങളും മറ്റും രചിക്കപ്പെട്ടിരുന്ന അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെയധികം മലയ സംസ്കൃതവുമായിട്ട് മലയാളത്തിനു ബന്ധമുണ്ട് പല പദപ്രയോഗങ്ങളും സംസ്കൃതത്തിൽ നിന്നും മലയാളം കടമെടുത്തിട്ടുണ്ട് മലയാളം മലയാളികൾക്കു പഠിക്കുന്നതിന് എളുപ്പമാണ് പക്ഷെ മറ്റു ഭാ ദേശക്കാർക്കോ മറ്റു ഭാഷക്കാർക്കോ ഇത് പഠിക്കുന്നതിനു വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാരണം അതിലെ അക്ഷരങ്ങൾ ലിപികളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതേസമയം നമുക്ക് മറ്റു ഭാഷകൾ പഠിക്കുന്നതിന് വളരെ മലയാളികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കുന്നത് എളുപ്പമാണെങ്കിലും മറ്റ് ഭാഷക്കാർക്ക് ഈ മലയാളം പഠിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അതുപോലെതന്നെ ഇംഗ്ലീഷ് സ്വാധീനം നമ്മളുടെ മലയാള ഭാഷയിൽ ധാരാളമായി കാണാം ഉദാഹരണത്തിന് ബെഞ്ച് ഡെസ്ക് തുടങ്ങിയ പല വാക്കുകളും നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് പണ്ടുകാലത്തെ ഇംഗ്ലീഷുകാരുടെ സ്വാധീ വരവും ഇവിടുത്തെ ഭരണവുമൊക്കെ ഇതിന് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് കാരണം ഇംഗ്ലീഷു കാരുടെ സംസ്കാരശൈലി നമ്മൾ മലയാളികൾ അനുകരിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഭാഷയുടെ കാര്യത്തിലും അതുതന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മറ്റും പണ്ടത്തെ പണ്ടു കാലത്ത് സ ധനികരുടെ ഒരു വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു മറ്റ് മിക്കവാറും ധനികരായിട്ടുള്ളവരും ഒക്കെ വിദേശത്തുപോയി പഠിച്ചിരുന്നവരാണ് നമ്മുടെ ഗാന്ധിജി നെഹ്റു തുടങ്ങിയവരൊക്കെതന്നെ ഉദാഹരണങ്ങളാണ് പണ്ടുകാലത്ത് വിദേശവിദ്യാഭ്യാസം പിന്നെ സ സായിപ്പുമാർ കേരളത്തിലേക്കുള്ള വരവും മലയാളത്തിൽ ഇംഗ്ലീഷ് സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഇംഗ്ലീഷ് സംസാര ശൈലി പിന്തുടരുന്നതിന് നമ്മുടെ മലയാളികൾ വിദേശത്തു ജോലി ചെയ്ത ചെയ്ത കൊണ്ടിരിക്കുന്ന മലയാളികളും ഒക്കെ ഈ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതു കൊണ്ട് നമ്മുടെ മലയാളത്തിലും ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ കടന്നുവന്നിട്ടുണ്ട് പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ മലയാളവും ഇംഗ്ലീഷും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതെ ഉപ് ഉപയോഗിക്കാനായിട്ടു സാധിക്കുന്നുണ്ട് മലയാളികൾക്ക് ഇംഗ്ലീഷ് അത് വാള അന്യഭാഷയൊന്നുമല്ല കാരണം ഇന്ന് എല്ലാവരും തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനു വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് കുട്ടികളെ പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയങ്ങളിലും ഒക്കെ ചേർത്ത് വിദേശത്തേക്ക് അയക്കാനായി ശ്രമിക്കുന്നവരാണ് അതുകൊണ്ടുതന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മലയാളിക്കിന്ന് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല അവർക്കും മനസ്സിലാക്ക് സ്വായത്തമാക്കുന്നതിന് വളരെയധികം എളുപ്പമുണ്ട് കൂടാതെ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ ഇംഗ്ലീഷും സംസ്കൃതവും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ജീവിതശൈലി അനുകരിക്കുന്ന മലയാളിക്ക് പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയും ധാരാളമായി ഉപയോഗിക് ഉപയോഗിക്കേണ്ടിവരുന്നു സംസ്കൃതം പക്ഷേ ഇന്നു വളരെക്കുറച്ചു മാത്രമേ നമ്മുടെ മലയാളഭാഷയിൽ ഉപയോഗിക്കുന്നുള്ളു മലയാളം പണ്ടു കാലത്ത് വേദജ്ഞരും അറിയപ്പെടുന്ന നി പണ്ഡിതന്മാരുമൊക്കെ സംസ്കൃതം പഠിച്ചിരുന്നു പക്ഷെ ഇന്ന് സ്കൂളുകളിലൊക്കെ കുറച്ചു സ്കൂളുകളിലൊക്കെതന്നെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് സംസ്കൃതമാണ് നമ്മുടെ ഭാഷയുടെ മൂല രൂപം